ആ കാറിൻ്റെ വർക്ക് ഷോപ്പ് അല്ലേ ആ ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കാർ ഉണ്ട് കാറ് കുറച്ച് പഴയതാണ് എന്നാലും ഞങ്ങൾ നല്ല രീതിയിലൊക്കെ സർവ്വീസ് ചെയ്ത് കൊണ്ടുനടന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു കാർ ആയിരുന്നു പക്ഷേ ഈ അടുത്ത് നാളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക്ഡൗൺ ആവുന്നു അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണോ അതോ എഞ്ചിൻ ട്രബിൾ ആണോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് അവിടോട്ട് കൊണ്ടുവന്നാൽ ആ ആ ഓഹ് ആ ഇതിപ്പോൾ ആ ഞങ്ങൾക്ക് അറിയത്തില്ല ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണോ അതോ എഞ്ചിൻ ട്രബിൾ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അവിടെ ആ നിങ്ങളുടെ വർക്ക് ഷോപ്പിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടുവന്നാൽ

ആ ആ ആ പിന്നെ ആ ഞങ്ങൾ അതാണ് ഞാൻ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് വണ്ടി ഇവിടെ വന്ന് കൊണ്ടുപോകുമോ അതോ ഞങ്ങൾ കൊണ്ട് അവിടെ തരണോ എന്ന് ഉള്ളതാണ്

ആ

പിന്നെ ആ പിന്നെ പിന്നെ കഴിവതും കഴിവതും അതിൻ്റെ ചാർജ്ജ് ഒക്കെ സാധാരണ രീതിയിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യണം മറ്റെ ആ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് അവിടെ കാരണം ഞങ്ങൾ ഒത്തിരി കഴിവൊന്നും ഉള്ളവരല്ല അപ്പം ഈ കാർ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആയാൽ വലിയ തുകയ്ക്ക് ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചത് ആ ആ ഞങ്ങൾ എല്ലാം എല്ലാം നല്ല രീതിയിൽ ഓയിൽ ഓയിൽ ആണെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ചെറിയ കാര്യം ഉണ്ടെങ്കിൾ തന്നെ ഞങ്ങൾ അപ്പോഴേ സർവ്വീസ് സ്റ്റേഷനെ ഏല്പിക്കും അത് ചെയ്തുകൊണ്ട് നടക്കുന്നതൊക്കെ ചെയ്യുമ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആണ് അത് ഈ കുറച്ച് വർഷങ്ങൾ ആയെങ്കിലും ഓടിക്കൊണ്ട് ഇരിക്കുന്നത് വലിയ പ്രശ്നമൊന്നും ഇല്ല ആ പിന്നെ ഓക്കേ ആ ആ എന്നാൽ ശരി